ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മറ്റേ ഹോ ഈ ഹോമിലേക്ക് അത്യാവശ്യം വേണ്ടിയിട്ടൊരു റഞ്ചസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സ്റ്റെയിൻലെസ്സ് സ്റ്റീലിൻ്റെ സാധനമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എഴുന്നൂറ്റി അൻപത് റുപ്യയാണ് അതിൻ്റെ വില വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എന്താ പറയുക കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധനമാണ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നപ്പോൾ വന്ന സാധനം ഞാൻ ഓർഡർ ചെയ്ത സാധനവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ എന്താ പറയുക ഹാൻഡിൽ അതായത് പിടിക്കുന്ന ഭാഗമൊക്കെ ഒരു വല്ലാത്ത റഫ്ഫ് സർഫസ് ആയിരുന്നു പിന്നെ സ്റ്റെയിൻലെസ്സ് സ്റ്റീൽ മെറ്റീരിയൽ ഒന്നും അല്ല അത് വേറെ ഏതോ മെറ്റീരിയലായിരുന്നു സാദാ ഏതോ മെറ്റീരിയൽ ആയിരുന്നു രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്കും അത് പകുതി പൊട്ടി രണ്ടു പീസ് ആയി ഞാൻ ആ സംഭവം റിട്ടേൺ ആക്കിയിട്ടുണ്ട്